എനിക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വെള്ളം ആവശ്യമാണ് എനിക്ക് ചൂട് സമയങ്ങളിൽ ഭയങ്കര ചൂടെടുത്തിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഒരുപാട് വെള്ളം കുടിക്കും പിന്നെ ഞാൻ ചൂടിൽ നിന്ന് ക്ഷാമം കിട്ടാൻ വേണ്ടി അത് ഷെയക്കോ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാറുണ്ട് അത് ശരീരത്തിന് നല്ലതാണ് എന്നാലമിതമായ മധുരം ശരീരത്തെ നാശമാക്കുന്നു ഇത് ഷുഗർ വരുത്തുകയും ഷുഗർ വരുന്നതിനും തടി വെക്കുന്നതിനും സാധ്യമാവുന്നു എന്നാൽ പിന്നീട് വെള്ളത്തിനാവശ്യം വൈകുന്നേരം കുളിക്കുമ്പോൾ കുടിക്കുന്നതിന് പിന്നെ കറികൾ വെക്കുന്നതിന് ചോറുകൾ വെക്കുന്നതിന് ഭക്ഷണം പാകം ചെയ്യാൻ പിന്നെ കഴുകാൻ പാത്രം കഴുകാൻ പിന്നെ ഷർട്ടലക്കി ഇടുവാൻ ഇതിനൊക്കെ ജലം ആവശ്യമായി വരുന്നു ജലം അമൂല്യമാണ് ജലത്തിലാണ് മീൻ ജീവിക്കുന്നത് മീനിന് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് മനുഷ്യൻ കുളിക്കാറുള്ള വെള്ളത്തിൽ മീനുകൾ ഉണ്ടാകാറുണ്ട് പുഴകളിലാണ് സ്ഥിരമായി കാണാറ്

കുളിക്കുകയും അലക്കുകയും ജലം കൊണ്ട് നമുക്ക് പല ആവശ്യങ്ങളുമുണ്ട്